മലയാളത്തിൽ സംസാരിക്കാനോ എഴുതുവാനോ ഇതുവരെ ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടി വന്നട്ടില്ല കാരണം ഞാൻ ചെറുപ്പകാലം തൊട്ടേ മലയാളം മീഡിയം സ്കൂളില് പഠിച്ച് വന്നതാണ് പ്ലസ് ടു ലാംഗ്വേജ് പ്രീഫെറ് ചെയ്തതും ഡിഗ്രിക്ക് ലാംഗ്വേജ് പ്രീഫെറ് ചെയ്തതും മലയാളം തന്നെ ആയിരുന്നു പിന്നെല്ലാ പരീക്ഷകളിലും ഭാഷാമാധ്യമമായിട്ട് ഞാൻ കൈകാര്യം ചെയ്യുന്നതും മലയാളം തന്നെയാണ് മറ്റ് ഭാഷകളേക്കാൾ കൂടുതലായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇംഗ്ലീഷ് ആണല്ലോ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നതും എല്ലാവർക്കും പരിചിതമായ ഭാഷകളും ഇംഗ്ലീഷ് ആയാൽ പോലും അത് കൈ കാര്യം ചെയ്യുന്നതിൽ കുറച്ച് പിഴകളുണ്ടായാൽ മലയാളം എഴുതുമ്പോഴോ സംസാരിക്കുവാനോ ഒരു ബുദ്ധിമുട്ടും ഇത് വരെ നേരിടേണ്ടി വന്നട്ടില്ല